ഇവിടുത്തെ വിനോദ പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തേതായിട്ട് ക്രിക്കറ്റാണ് ക്രിക്കറ്റ് കളി ഇവിടുത്തൊരു മെയിൻ ഫെസ്റ്റിവൽ തന്നെയാണ് അതായത് മെയിൻ കാര്യങ്ങള് തന്നെയാണ് പിന്നെ ഫുട്ബോള് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ആളുകൾക്ക് വിനോദം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ ബീച്ചിലെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് അത് ഇവിടുത്തൊരു ഇതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ടീവി ഷോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബുക്ക്സ് വയ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കളികളും ഇതൊക്കെയുണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് തന്നെയാണ് അതായത് ക്രിക്കറ്റിനാണ് ഒരുപാട് ആളുകള് വരുന്നതും കളിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ അതുപോലെത്തന്നെ ഫുട്ബോളും അതുപോലെത്തന്നെയാണ് അതുപോലെത്തന്നെ പത്രം കാര്യങ്ങള് അതിനൊക്കെ അതൊക്കെ ഇങ്ങനെ ഇതാക്കുന്നു അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഈ കാര്യങ്ങളിലൊക്കെയാണ് പിന്നെ എന്ന് പറയുന്നത് ബീച്ചിലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറേ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രം ബീച്ചിലിരിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത്